കുഴൽക്കിണറിനെപ്പറ്റി പറയുകയാണെങ്കില് കുഴൽക്കിണര് നമുക്ക് വീട്ടിലില്ല പക്ഷേ അടുത്തൊരു വീട്ടില് കുഴൽക്കിണറുണ്ട് അങ്ങനെ കുഴല്ക്കിണര് നമുക്ക് കിണര് മാത്രമാണുള്ളത് കുഴൽക്കിണറുകള് അത്യാവശ്യമാണ് കാരണം വെള്ളം പറ്റുന്ന സമയങ്ങളിലൊക്കെ കുഴൽക്കിണറുകളാണ് നമുക്ക് പ്രയോജനകരമായിട്ടുള്ളത് കുഴൽക്കിണറ്റില് നിന്നാണ് വെള്ളമെടുക്കാറുള്ളത് പിന്നെ പൊതുവായിട്ട് എല്ലാവർക്കുമുള്ളതെന്ന് വെച്ചാല്പ്പിന്നെ ഒരു പൈപ്പ് ലൈൻ കുഴൽക്കിണറല്ല ഇങ്ങനെയൊരു വെള്ളം കിട്ടുന്നൊരു സംഭരണി പോലെ ഒരിതുണ്ട് അതിനകത്തുകൂടെയാണ് വെള്ളമെടുക്കാറുള്ളത് വരള്ച്ച കാലങ്ങളില് ജനുവരി ഫെബ്രുവരി മാർച്ചൊക്കെയാകുമ്പോഴത്തേക്കും വെള്ളം പറ്റാറുണ്ട് ആ സമയങ്ങളില് കുഴൽക്കിണര് അത്യാവശ്യമാണ് ഇപ്പോഴൊക്കെ കുഴൽക്കിണര് ഉണ്ടാക്കുന്ന അടുത്ത വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോഴും വെള്ളം കിട്ടാറില്ല പെട്ടെന്ന് തന്നെ കുറേ താഴ്ത്തുകഴിയുമ്പോഴാണ് കുറച്ചെങ്കിലും വെള്ളം വരുന്നത് എന്നാലും അത് ഇപ്പോഴത്തെ കുഴൽക്കിണര് അത്ര ശാശ്വതമാണെന്ന് തോന്നുന്നില്ല കാരണം പെട്ടെന്നുതന്നെ വെള്ളം പറ്റും അതുപോലെ കോരിയെടുക്കാനും താമസമാണ് കുഴല്ക്കിണറുകള് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ടെന്ന് പറയാനായിട്ട് നമുക്കതിനെപ്പറ്റി പറയാനായിട്ട് വലിയ ഇതില്ല കാരണം നമ്മള് സാധാ കിണറുകളാണ് ഒരു ഫെബ്രുവരി മാർച്ച് മാസം വരെയൊക്കെ വെള്ളം അതിനകത്തുനിന്ന് കിട്ടും പിന്നെ പൊതുവായിട്ട് ആ ആ പിന്നെ കുഴല്ക്കിണറുകള് ഉപയോഗിക്കുന്നവര് പിന്നെ മോട്ടർ വെച്ചാണെടുക്കാൻ പറ്റുന്നത് കാരണം വെള്ളം കോരിയെടുക്കാനായിട്ട് ഭയങ്കരം പാടാണ് അത്രയും ആഴത്തില് കിടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് കുഴല്ക്കിണറുകൾ നമ്മള് വെള്ളം കോരിയെടുത്താണ് കോരിയെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് പൈപ്പ് ഉപയോഗിച്ചാണ് കുഴക്കിണറിൽ നിന്നും വെള്ളമെടുക്കുന്നത് അതുപോലെ അടുത്തുള്ള വീടുകളില് എല്ലാവർക്കും കിണറുകൾ കിണറുകളിൽ നിന്ന് വെള്ളം കിട്ടുന്നില്ലെന്നുണ്ടെങ്കില് ഈ കുഴൽക്കിണറിനെ ആശ്രയിക്കുന്നുണ്ട് കുഴല്ക്കിണര് എത്ര താഴ്ത്തിയാലും ഒരുപാട് ഒരുപാട് ആഴം താഴ്ന്നിറങ്ങേണ്ട ഒരവസ്ഥയിലാണ് ഉടന് തന്നെ കുഴല്ക്കിണർ കുഴിച്ചാൽ ഉടന് തന്നെ വെള്ളം കിട്ടണമെന്നില്ല ഒരുപാട് ആഴത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴാണ് കുഴല്ക്കിണറ്റില് നിന്നും വെള്ളം ലഭിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇപ്പോള് പൈപ്പ് ലൈന് ഇപ്പോള് എല്ലായിടത്തും വരുന്നതുകൊണ്ട് റോഡില് എവിടെയെങ്കിലും ഒരു പൈപ്പ് ലൈൻ സ്ഥാപിച്ചാല് അവിടെയുള്ളവരെല്ലാവരും കൂടി അതുപോയി ആ നാട്ടിലുള്ള ആ അടുത്ത് താമസിക്കുന്ന എല്ലാവരും ഒരിടത്ത് പോയി നിന്ന് പ്രവർത്തിച്ച് വെള്ളം ഒത്തൊരുമയോട് കൂടി ഉപയോഗിക്കുന്ന രീതിയാണുള്ളത് ഓരോരുത്തരും ഓരോരുത്തരും അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും എല്ലാം അവിടെ പോയി വെള്ളം എടുത്ത് ഉപയോഗിക്കും അവിടെ പോയി അച്ചടക്കത്തോടുകൂടി ഓരോരുത്തരും ഒരാള് പിടിച്ചുകഴിഞ്ഞ് അടുത്തയാള് അങ്ങനെ വൺ ബൈ വൺ ഓരോരുത്തരും ലൈൻ ലൈനായിട്ട് നിന്ന് വെള്ളം പിടിക്കുന്ന ഓരോ പതിവുകള് നമ്മള് കാണാറുണ്ട് ഗ്രാമത്തിലെ എല്ലാവർക്കുമായിട്ട് വെള്ളത്തിന് ഉപയോഗിക്കുന്നൊരു വലിയ കിണറെന്നുവെച്ചാൽ പഞ്ചായത്തിൻ്റെയൊക്കെ രീതിയിലുള്ള കിണറുകളുണ്ടാകും അവിടെ ആ പരിസരങ്ങളിലുള്ളവർക്കെല്ലാം അത് വളരെ ആശ്വാസമായിരിക്കും കാരണം ആ പഞ്ചായത്തിലുള്ളവരെല്ലാവരും ആ കിണറിനെയായിരിക്കും വറവുകാലങ്ങളിൽ ആശ്രയിക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ഡിസംബര് മുതലേ പിന്നെ വെള്ളം പറ്റുന്ന ഒരു പതിവ് കാണാറുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനെയുള്ള കിണറുകളാണ് പിന്നെ കുഴല്ക്കിണറുകളാണ് പിന്നെ ഉപകാരമായിട്ടുള്ളത് അല്ലെങ്കില് ഇതുപോലെയൊരു ഒരു പത്ത് ഇരുന്നൂറ്റിയമ്പത് വീട്ടുകാർക്ക് ഗുണപ്രദമാകുന്ന രീതിയിലുള്ള ഒരു കിണര് അങ്ങനെയുള്ള കിണറുകള് ഇപ്പം വളരെ ചുരുക്കമാണ് അത് നമ്മുടെ ഗ്രാമത്തില് അങ്ങുമിങ്ങും എവിടെയെങ്കിലുമൊക്കെയെ കാണുകയുള്ളൂ എല്ലായിടത്തും അതുണ്ടാകണമെന്നില്ല അപ്പം എല്ലാവരും വെള്ളത്തിനായിട്ട് ഒരേ ഒരേ കിണര് തന്നെയായിരിക്കും ആശ്രയിക്കുന്നത് അല്ലാതെ പണ്ടത്തെ സാഹചര്യങ്ങളിലെ പോലെ ഒരിടത്ത് വരുമ്പോള് വെള്ളം വണ്ടി വെള്ളം കൊണ്ടുവരും അങ്ങനെയുള്ള പതിവുകളൊക്കെ ഇപ്പോള് നിന്നുപോയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതുപോലെ എവിടെയെങ്കിലും ഒരു പൈപ്പ് ലൈൻ ഉണ്ടെങ്കില് ആ ഗ്രാമത്തിലെ എല്ലാവരും കൂടെ അതിനു ചുറ്റും കൂടി അവിടെനിന്ന് വെള്ളം പിടിച്ച് ജീവിക്കും അങ്ങനെ കുഴല്ക്കിണറുകള് നമുക്കുള്ളത് എപ്പോഴും നല്ലതാണ് കാരണം ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഒത്തിരി ദുരിതാവസ്ഥയിലായിട്ട് നമ്മുടെ വേനല്ക്കാലം വരുമ്പോള് അതിനെ ആശ്രയിക്കുകയാണ് നമ്മള് ചെയ്യാറുള്ളത് നമ്മുടെ സാധാ കിണറുകളൊക്കെ വറ്റിപ്പോകും പിന്നെ വെള്ളം വണ്ടികളൊക്കെ വരുന്നത് വെള്ളം ഒക്കെ കുഴല്ക്കിണറില് നിന്നുള്ള കിണറുകളില് നിന്നായിരിക്കും വെള്ളമൊക്കെ അടിച്ചിട്ട് ഈ വണ്ടികളിൽ സപ്ലൈ ചെയ്യുന്നത് അപ്പം അത് നമുക്കൊത്തിരി ഉപകാരമാണ് നമ്മള് തന്നെ വെള്ളം ആവശ്യപ്പെടുമ്പോള് അവര് കൊണ്ടുവരുന്ന വെള്ളം വണ്ടിയിലായിരിക്കും വലിയ വെള്ളം വണ്ടിയിലായിരിക്കും നമുക്ക് ഈ കുഴൽക്കിണറ്റില് നിന്ന് എവിടെയെങ്കിലും പഞ്ചായത്തിലൊരു കുഴല്ക്കിണറുണ്ടെങ്കില് അവിടെനിന്ന് പിടിച്ചുകൊണ്ടായിരിക്കും ഇതെല്ലാം വരുന്നത് അങ്ങനെ കുഴല്ക്കിണര് നമുക്ക് വളരെയധികം ഉപകാരപ്രദവുമാകുന്നുണ്ട്